ഞാനിപ്പം പെട്ടന്ന് നമുക്കെന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിനു വേണമെങ്കിൽ ഞാന് കൂടുതല് ഉണ്ടാക്കുന്നത് അങ്ങനല്ല ചേരുവകള് കുറഞ്ഞല്ല എന്നാലും ഞാന് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഈ വീട്ടില് പച്ചക്കറി കഴിക്കാന് ചെറുമക്കൾക്കും മക്കൾക്കും ഒന്നും ഇഷ്ടവല്ല അപ്പോൾ ഞാനെന്തു ചെയ്യും എന്ന് വച്ചിട്ടുണ്ടെങ്കില് പച്ചക്കറി അതായത് നമ്മുടെ ചീര മുരിങ്ങയില തക്കാളി ഉള്ളി തേങ്ങയൊക്കെ ആദ്യം തന്നെ ഒന്ന് വഴറ്റും കുറച്ച് പച്ചമുളകുമിട്ടിട്ട് എന്നിട്ട് അതിനകത്തോട്ട് മുട്ട തോരന് പോലാക്കിയെടുക്കും അതേപോലെ തന്നെ ഉപ്പുമാവിലാണെങ്കിലും ക്യാരറ്റും പിന്നെ ഗ്രീന്പീസ് അതേപോലെ തന്നെ പിന്നെ ബീന്സ് ഒക്കെ നന്നായിട്ട് മുറിച്ചിട്ടിട്ട് കഴിക്കാം അല്ലാതെ നമ്മള് തോരനാക്കി ഉണ്ടാക്കി കൊടുക്കുമ്പം അവര് കഴിക്കില്ല തോരന് കൂട്ടില്ല അവര് അവർക്ക് ഇഷ്ടമല്ല ഒരെല അങ്ങനെ ഉണ്ടാക്കുന്നത് ഇഷ്ടേയല്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കും പിന്നെ നമ്മള് ദോശയുണ്ടാക്കുമ്പോൾ ദോശ മാവില് ക്യാരറ്റ് ബീറ്റ്റൂട്ട് ഒക്കെ ഞാന് അരച്ചിടും അങ്ങനെ കഴിക്കാന് ഭയങ്കര മടിയാണ് അപ്പം അങ്ങനെയൊക്കെ എളുപ്പത്തിലുള്ള ഭക്ഷണങ്ങള് അപ്പം ചേരുവകള് കുറവാണെങ്കിലും കുഴപ്പമില്ല നമ്മള് തട്ടിയും മുട്ടിയും അവര് കഴിക്കും അല്ലെങ്കില് നമ്മള് ഒന്നുമില്ലെങ്കിൽ തന്നെ എങ്ങനേലും അഡ്ജസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഒക്കെ കറിയുണ്ടാക്കും ഉള്ളത് വച്ച് കറി ഉണ്ടാക്കും എല്ലാവരും സന്തോഷത്തോടെ കഴിക്കാറും ഉണ്ട് കേട്ടോ അങ്ങനെയുണ്ടാക്കുമ്പോഴും